ആ സ്റ്റാമ്പുകള് നാണയങ്ങള് കല്ലുകളൊക്കെ ചെയ്യുന്നതിന്റെ വിദ്യാഭ്യാസ മൂല്യം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കില് അതായത് പണ്ടത്തെ സ്റ്റാമ്പുകളും നാണയങ്ങളും അതായത് അണ പൈസ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ ചെറിയ ചെറിയ ഒരു പാട് സ്റ്റാമ്പുകളൊക്കെ ഉണ്ട് നമുക്ക് പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുദ്ര പേപ്പറിന് കാര്യത്തിനൊക്കെ എപ്പോഴും സ്റ്റാമ്പ് കാര്യങ്ങളൊക്കെ വേണം അപ്പന്ന് പിന്നെ സ്റ്റാമ്പൊക്കെ ഒരുപാടുണ്ട് പക്ഷെ ഇപ്പം ഇന്നത്തെ കാലത്തെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പിന്നെ അക്ഷയില് കാര്യങ്ങളിലൊക്കെന്ന് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് സ്റ്റാമ്പിൻ്റെ ആവശ്യം വളരെ കുറവാണ് എന്നാലും തുച്ഛമായ സ്ഥലത്ത് മാത്രം നമുക്ക് സ്റ്റാമ്പിൻ്റെ ആവശ്യങ്ങള് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ പിന്നേന്ന് വച്ചിട്ടൊണ്ടെങ്കില് നമുക്ക് വിദ്യാഭ്യാസ മൂല്യം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ പഠിക്കാനുണ്ട് പഠിക്കാനുള്ള സമയത്തെന്ന് വച്ചിട്ടുണ്ടെങ്കില് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള സമയത്തെന്ന് വച്ചിട്ടുണ്ടെങ്കില് നമുക്ക് അതായത് കുറെ പേര് ഇതൊന്നും കാണാത്തവരൊക്കെ ഉണ്ടാകും അപ്പം ആ കാണാത്തവർക്കൊക്കെ ഇത് പിന്നെ കാണാൻ പറ്റും അതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി പഠിക്കാൻ പറ്റും അതായത് ഇന്നത്തെ പിന്നെ അണ നാണയങ്ങളൊക്കെ തമ്മി നാണയം അന്നത്തെ അണ പൈസ ഇത് തമ്മിലുള്ള വ്യത്യസവും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അതായത് കാണാത്ത കുട്ടികൾക്ക് കാണാനും പഠിക്കാനുമൊക്കെ സാധിക്കും